ഇന്ത്യയിലെ ഗതാഗത സംവിധാനങ്ങളെന്ന് പറയുമ്പോൾ വ്യോമ ഗതാഗതവും ഉണ്ട് ട്രെയിന് അതേപോലെ ബസ്സ് സംവിധാനങ്ങൾ പിന്നെ ജലഗതാഗതം ഉണ്ട് ഈ റോഡ് ഗതാഗതത്തിൻ്റെ കാര്യം പറയുമ്പോൾ വാഹനങ്ങൾ നിരവധി ആണ് ഡെയ്ലി റോഡിൽ ഇറങ്ങുന്നത് പുതിയ പുതിയ വാഹനങ്ങൾ റോഡിലിറങ്ങുന്നു ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് പുതുതായിട്ട് ഇറങ്ങുന്നത് അതാണ് ഒരു അതുകൊണ്ട് തന്നെ റോഡിൽ ഭയങ്കര ബ്ലോക്കാണ് ജോലിക്കൊന്നും സമയത്ത് എത്താൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇതിൽ അടിക്കുന്ന അടിക്കുന്ന ഡീസലിന് ആണെങ്കിൽ ദിനം പ്രതി കൂടി കൊണ്ടിരിക്കുന്നു ഡീസലടിച്ചിട്ട് ശബ്ദ മലിനീകരണം വായു മലിനീകരണങ്ങൾ മറ്റ് സംഗതികൾ അതതിൻ്റെ മറ്റൊരു വശം ട്രെയിൻ ഗതാഗതവും ഏറെക്കുറെ നല്ല രീതി തന്നാണ് അത് നിരവധി യാത്രക്കാരയ്നെ ആസ്രയിക്കുന്നുണ്ട് അതെപോലെ വ്യോമ ഗതാഗതം എത്രയും പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് എത്താന് ഏറ്റോ ഏറ്റോം നല്ലത് പറ്റിയ വ്യോമ ഗതാഗതം നമ്മൾ കാണുന്നത് മറ്റൊരു രാജ്യത്തേക്ക് ബസ്സിന് പോവുകയല്ലെ അല്ലെങ്കിൽ ട്രെയിനിൽ പോകുന്നതിനെക്കാളേറെ എത്രേം പെട്ടന്ന് എത്താൻ പറ്റണൊര് സംവിധാനാണ് വ്യോമ ഗതാഗതം ജല ഗതാഗതവും നല്ല രീതിയിൽ തന്നെ നാട്ടിലു ണ്ട്